ഞങ്ങള്ക്കു കന്നുകാലികളങ്ങനെ ഇല്ല എന്നാലും കന്നുകാലികള് ഉണ്ടാകുമ്പോൾ ജനിച്ചാല് നല്ലപോലെ പരിപാലിക്കാറുണ്ട് അതിങ്ങളെ അതിനെ കുളിപ്പിക്കും അതിന് പാല് കുടിക്കേണ്ട സമയത്ത് അതിനെ വിടും പിന്നെ വൃത്തിയായിട്ട് അതിനെ നോക്കും നമ്മള് പിന്നെ എപ്പോഴും പാല് കുടിക്കാൻ വേണ്ടി അമ്മയുടെ അടുത്ത് നമ്മള് വിടാറുണ്ട് പിന്നെ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യും അതിനെ മാറ്റിയൊക്കെ നിർത്തും പിന്നെ അതിനു പുകയൊക്കെയിട്ടു കൊടുക്കും ജസ്റ്റ് ജനിച്ചതല്ലേ ഉള്ളു അങ്ങനെ ആ രീതിയില് നല്ല നല്ല നല്ല രീതിയില്ത്തന്നെ നമ്മള് കന്നുകാലികളെ പരിപാലിക്കാറുണ്ട് പിന്നെ കിടാങ്ങൾക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ പാല് കുടിക്കാനൊക്കെ തള്ളയുടെ അടുത്ത് നമ്മള് കൊണ്ടുപോയിനിർത്തി പാല് കുടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും പിന്നെ തള്ളയെ വൃത്തിയായിട്ട് കുളിപ്പിച്ചിട്ട് കിടാങ്ങൾക്കു പാല് കൊടുക്കാറുള്ളൂ കിടാങ്ങളെയും നല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നതുപോലെ തന്നെ നമ്മള് നല്ല രീതിയില്ത്തന്നെ പരിപാലിക്കാറുണ്ട് അപ്പോഴതുകൊണ്ട്